അതായത് നമ്മുടെ സമൂഹത്തിൽ ഒക്കെ ഇത് കായിക വിനോദമാണ് അതായത് ക്രിക്കറ്റ് ഫുട്ബോൾ കാര്യങ്ങൾ ഒക്കെ കളിക്കിന്നതില് പിന്നെ ഗ്രാമീണരുടെ അഭിപ്രായം എന്നാന്ന് വെച്ചിട്ട് ഉണ്ടെങ്കിൽ അവർക്കും കാണാനും കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതായത് ഭയങ്കര ഇഷ്ടം കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും അപ്പം ചിലവര് ഒക്കെന്ന് വെച്ചിട്ട് ഉണ്ടേൽ അവരുടെ സ്ഥലങ്ങളിലും കാര്യങ്ങളിലും തന്നെ ആയിരിക്കും ക്രിക്കറ്റ് കാര്യങ്ങൾ ഒക്കെ കളിക്കുന്നത് അതായത് കുട്ടികള് കളിക്കുന്നത് അങ്ങനെ ഒക്കെയെ കണ്ടിട്ട് ഉണ്ടാവുകയുള്ളു അപ്പം വലിയ വലിയ വേൾഡ് കപ്പ് കാര്യങ്ങൾ ഒക്കെ വരുമ്പം നമ്മള് ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കാണാറുണ്ട് അപ്പം അങ്ങനെ ഒക്കെ ആയിരിക്കും ഗ്രാമീണര് ഒക്കെ കാണുന്നത് അപ്പം അവർക്ക് അഭിപ്രായമെന്ന് വെച്ചിട്ട് ഉണ്ടേൽ അവര് അത്യാവശ്യം നല്ല അതായത് അവർക്കും ചില കുട്ടികൾക്ക് ഒക്കെ ഇങ്ങനെ കളിക്കാനും നമ്മൾ അറിയാത്ത ഒരുപാട് കുട്ടികള് ഗ്രാമീണരില് ഉണ്ടാകും ഇപ്പം കളിക്കാനും അതായത് ഇങ്ങന സീറ്റ് കിട്ടാത്ത അങ്ങനെ ആൾക്കാര് ഒക്കെ ഒരുപാട് ഉണ്ടാകും ചിലപ്പ സച്ചിൻ ടെണ്ടുൽക്കറെക്കാളും ധോണീനെക്കാളും ഒക്കെ കളിക്കുന്ന അടിപൊളി കുട്ടികൾ ഒക്കെ ആയിരിക്കും പക്ഷെ അവർക്കെന്ന് വച്ചിട്ട് ഉണ്ടെങ്കിൽ അവരുടെ ക്യാഷ് ക്യാഷ് പ്രശ്നം ആണല്ലൊ അപ്പം അവർക്ക് ആ പരിമിതികൾക്ക് ഇടയില് ഇങ്ങനെ ഒര് സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കും അപ്പമെന്ന് വച്ചാൽ അവര് ഒക്കെന്ന് വെച്ചിട്ട് ഉണ്ടെങ്കില് ഈ ടൈമിൽ അതായത് ക്രിക്കറ്റ് ഫുട്ബോൾ അങ്ങനത്ത കാര്യങ്ങൾ ഒക്കെ കാണാൻ വീണ്ടും കൊതിച്ച് ഇരിക്കുന്നത് ആയിരിക്കും അപ്പം അവരുടെ ഒക്കെ ഇതീന്ന് വെച്ചിട്ട് ഉണ്ടെങ്കിൽ അവർക്ക് അത് ഒക്കെ ഒരു വലിയൊരു പ്രചോദനം തന്നെ ആണ് അപ്പം ഗ്രാമീണർക്ക് അത് ഒക്കെ തന്നെയാണ് ഒര് അഭിപ്രായം